ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത് സാധാരണ നമ്മൾ കപ്പിയും കയറും ഒക്കെ ഇട്ടാണ് എടുത്തോണ്ടിരുന്നത് ഇപ്പോഴല്ലേ മോട്ടറ് വന്നത് മോട്ടറ് വയ്ക്കുന്നത് മോട്ടറ് കൊണ്ട് വന്ന് നമ്മുടെ വെള്ളത്തിനടിയിൽ കിണറ്റിൽ ഇറക്കി മുക്കി വച്ച് അങ്ങനെ ഇലക്ട്രിക്ക് ഇലക്ട്രിക്ക് മോട്ടറോ മോട്ടറ് അങ്ങനാണ് ഉപയോഗിക്കുന്നത് മോട്ടറെല്ലാം ഘടിപ്പിച്ച് അതിനകത്ത് മോട്ടറ് വെള്ളത്തിനകത്ത് ഇറക്കി വച്ച് നമ്മുടെ വീടിനകത്ത് സ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഘടിപ്പിച്ച് മോട്ടറ് ഓൺ ചെയ്ത് അങ്ങനെ വെള്ളം നമുക്ക് അങ്ങനാണ് നമ്മൾ മോട്ടറ് ഉപയോഗിക്കുന്നത് ഇപ്പോഴല്ലേ നമുക്ക് മോട്ടറും കാര്യങ്ങളും വന്നത് മറ്റെ കപ്പി കയറ് തൊട്ടി എല്ലാം ഇട്ട് വെള്ളം കോരി എടുക്കുന്ന ഒരു സംവിധാനം അല്ലായിരുന്നോ ഇപ്പോഴാണ് മോട്ടറും കാര്യങ്ങളും ഒക്കെ വന്നത് മോട്ടറുപയോഗിക്കുന്നത് അങ്ങനാണ് വെള്ളം വെള്ളത്തിലോട്ട് നമ്മൾ കിണറ്റിലോട്ട് മോട്ടറ് ഇട്ട് ഘടിപ്പിച്ച് അങ്ങനെ കറണ്ട് വഴി ഇലക്ട്രിക്ക് കറണ്ട് വഴി നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് മോട്ടറ് നിറയും നമ്മുടെ പ്ലംബിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ ടാങ്കൊക്കെ ഘടിപ്പിച്ച് ടാങ്കിൽ ടാങ്കിനകത്ത് വെള്ളം വന്ന് ഫുള്ള് നിറഞ്ഞ് കഴിയുമ്പം മോട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് അങ്ങനെ നമ്മൾ മോട്ടറ് വെള്ളം ഉപയോഗിക്കുന്നത്